പാലക്കാട് ജില്ലയിലെ ആരാധനാലയങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് ഫെയിമസ് ആയിട്ടുള്ള കുറെ കുറെ അമ്പലങ്ങള്ണ്ട് അത് അതായത് അങ്ങനെ പാലക്കാട് ജില്ല നമ്മടെ കേരളത്തില് നോക്കത്തന്നെ ഏറ്റവും വലിയ ജില്ലയാണ് അപ്പോൾ അവിടെ ആരാധനാലയങ്ങള് നോക്കാണെന്ന് പറയുമ്പോൾ കുറെ ഇപ്പോൾ ഓരോ ഇതിലും ഇപ്പോൾ നമ്മളെ ഓരോ സ്ഥലത്ത് ഓരോരോ ഫെയിമസ് ആയിട്ടുള്ള അമ്പലങ്ങളുണ്ട് അതൊക്കെ ആ പ്രദേശങ്ങളിലെ ആണെങ്കിൽ ഇപ്പോൾ പാലക്കാട് ജില്ലയിലെ മൊത്തത്തിൽ അറിയപ്പെടുന്നന്ന് പറയുമ്പോൾ നെന്മാറ വല്ലങ്കി അവടെ ആ ക്ഷേത്രണ് അത് പൂരത്തിനും നല്ല ഫെയിമസ് ആയതുകൊണ്ട് അവിടെ ഏകദേശം ഇപ്പോൾ കേരളത്തിലെ തന്നെ അറിയപ്പെടുന്നോരു അമ്പലമാണ് പിന്നെ ചെനകോത്തൂർ കാവ് ചെനകോത്തൂർ കാവും കേരളത്തിലെ അറിയപ്പെടുന്നതാണ് കാരണം അവിടത്തെ വേല അലെങ്കിൽ ഉത്സവം ഫെയ്മസ് ആയതുകൊണ്ട് അതും കേരളത്തിലേകദേശം നന്നായി അറിയപ്പെടുന്ന ഒരു അമ്പലമാണ് പിന്നെ തിരുവല്ലാമല ശ്രീരാമൻറ്റെ ക്ഷേത്രം ഉണ്ട് അതും അവിടെയും നല്ല വെടികെട്ടോക്കെ ഫെയ്മസ് ആയിട്ടുള്ള സ്ഥലമാണ് അതും അറിയപ്പെടുന്നതാണ് അങ്ങനെ നോക്കാണെന്ന് പറയുമ്പോൾ നമ്മളെ പല അമ്പലങ്ങളും ഈ വേലയോടനുബന്ധിച്ച് ഫെയിമസ് ആയിട്ട് വരുന്നോണ്ട് മറ്റെ എല്ലാം ഏകദേശം ഫെയിമസ് ആണ് അപ്പോൾ എന്താ പറയുക അങ്ങനെ സാംസ്കാരികമായിട്ട് ഇതൊക്കെ നല്ല മുന്നിട്ട് നിൽക്കുന്ന ഉത്സവങ്ങളും സമൂഹത്തിനു മുമ്പിൽ നല്ലൊരു എന്താ പറയുക കൂട്ടായ്മയും കാര്യങ്ങളോക്കെണ്ടാക്കാൻ പറ്റണ ഒരു ഇതാണ് പിന്നെ നമുക്ക് നോക്കാണെന്ന് പറയുമ്പോൾ അവ വേറെ ആൾക്കാരുടെ അല്ലെങ്കിൽ ക്രിസ്റ്റിയൻസിൻറ്റേന്ന് പറയുമ്പോൾ പള്ളികളും കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് അവരുടെയും ആഘോഷപരിപാടികളും സാധനങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ അവരുടെ എന്താ പറയുക ഈസ്റ്റർ അല്ലെങ്കിൽ ക്രിസ്മസ് അങ്ങനത്തെ എല്ലാ പരിപാടികൾക്കും നല്ല കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമ്മടെ ഈ ലോക്കൽ ആയിട്ടുള്ള ചെറിയ ചില ഗ്രാമപ്രദേശങ്ങളില് ഇപ്പോ നമ്മളെ കൊട്ടായി അങ്ങനത്തെ കുറെ ഗ്രാമപ്രദേശങ്ങളില് വന്നിട്ട് കാളപൂട്ട് പോലെള്ള മത്സരങ്ങളോക്കെ നല്ല ഫെയ്മസാണ്